നമ്മൾ ഒരുപാട് ഹൈക്ക് യാത്രകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ശ് ഒന്നാമത് പിന്നെ ശബരിമല യാത്ര നമ്മളിവിടുന്ന് ശബരിമല യാത്രയാണ് ഒരു ഹൈക്ക് പ്രദേശത്തിലെ യാത്രയാണ് അങ്ങനെ തുടങ്ങിയത് നമ്മൾ അങ്ങനെ അവർ ഇവിടുന്ന് പോയി ഹൈക്ക് വളരെ പ്രയാസപ്പെട്ടൊരു യാത്ര തന്നെയാണ് ശബരിമല യാത്ര കാണേണ്ടതുണ്ട് ഒരുപാട് കാഴ്ചകള് നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നതു പോലെയല്ല കാണേണ്ട കാഴ്ചകളുണ്ട് നമ്മളവിടെ പോയി അനുഭവിച്ചാൽ അറിയാം ഓരോ കാര്യങ്ങളും നമ്മളിവിടുന്ന് രാവിലെ വിട്ട് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ നമ്മള് ഏകദേശം ഈ യാത്രാന്നുള്ള രീതിയിലേക്ക് ഹൈക്കു വരുന്നത് നമ്മള് കാനനം കാനനപാതയിലൂടെ നടക്കുന്ന ആ ഒരു പ്രത്യേക രീതിയിലേക്ക് തന്നെയാണ് കാനന പാത എന്ന് പറയുമ്പോൾ നമ്മള് കാനനപാത കളകെട്ടി ഇത് ഇത് ഒന്ന് തുടങ്ങിയ കഴിഞ്ഞാല് നമ്മള് എരുമേലിന്നാണ് നമ്മള് നടക്കാൻ തുടങ്ങുന്നത് ശരിക്കും എരുമേലിന്ന് നടക്കുന്ന സമയത്ത് എരുമേലിന്ന് നടന്ന് ഓരോ സ്റ്റോപ്പുകളും നമ്മള് ശരിക്കും അവിടുന്ന് എരുമേലിന്ന് ഒരു പത്തു മിനിറ്റ് നടന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യം കുറച്ച് പ്രദേശങ്ങള നല്ല ഹൈക്ക് ആയിട്ടുള്ള പ്രദേശങ്ങള് ഒരുപാട് കാണാനും ഉള്ള രീതിയുണ്ട് അതുപോലെ നമ്മള് ഓര് നടന്നു നടന്നു ചെല്ലുമ്പോൾ ശരിക്ക് അതിൻ്റെ വളരെ നിർണായകമായി തോന്നിയത് നമുക്ക് കാനനപാത തന്നെയാണ് കാനനപാതയിലെ ഇവിടുന്ന് നമ്മള് കല്ലടാം കുന്ന് കല്ലടാം കുന്നിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കല്ലടാംകുന്ന് വളരെ ഹൈക്കായ പ്രദേശങ്ങളും രണ്ടു ഭാഗത്തും ഹൈക്കായ പ്രദേശങ്ങളാണ് നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള നല്ല ഹൈക്ക് ഇത് മാത്രമല്ല വളരെ മുട്ട് വേദന എടുക്കുന്ന രീതിയിലേക്ക് നല്ല ഹാങ്ങായിട്ടുള്ള പിടുത്തം വരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ കാളകെട്ടി കാളകെട്ടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് താഴന്ന് വളരെ നമ്മള് സ് വൈകുന്നേരങ്ങളിൽ ആണെങ്കിൽ സൂര്യപ്രകാശം കാണുന്നതിലും നല്ല രീതിയാണ് രാവിലെയും നല്ലൊരു കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയും കാര്യങ്ങളും എന്നാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ പറഞ്ഞാല് അവിടുന്ന് കിലോമീറ്ററുകളാണ് കിലോ മീറ്റർ കിലോമീറ്ററുകൾ ഒരേ കേറ്റത്തില് അതേപോലെ കേറ്റം വന്നു കഴിഞ്ഞാൽ കേറ്റം തന്നെ നമ് വിട്ടുകയറ്റം എന്നുള്ള രീതിയിൽ തന്നെ പറയാം ശരിക്ക് നടക്കാൻ വേണ്ടി നമുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള രീതിയാണ് മേലെ എത്തുമ്പോഴേക്കും നമ്മൾ ഹൈക്ക് പ്രദേശം ശരിക്കും താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല കൃത്യമായ നമ്മുടെ പ്രകൃതി ഗ്രാ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് താഴെ വലിയ മലനിരകള് ഓളങ്ങള് ഓളങ്ങള് എന്നു പറഞ്ഞാൽ വളരെ നല്ല മരത്തിൻ്റെ അടുത്ത് വേറെ ഒന്നും വിജനമായ ഒരു പ്രദേശമാണ് വേറൊന്നും അവിടെ കാണാനില്ല ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തെ കാനന പാതയാണ് ഏകദേശം ഒര് നോക്കെത്താ ദൂരത്തോളം നല്ല ലെവലായി ഓളങ്ങളും മറഞ്ഞ് സൂര്യൻ്റെ ഉദന ഉദയസമയം ആണെങ്കിൽ വളരെ ലൈറ്റായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് അതുപോലെ നമ്മള് വളരെ നമ്മൾക്ക് പ്രയാസം തോന്നിയിട്ടുള്ളത് ഈ കരിമല കയറ്റം കരിമല കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയുക കരിമല കയറ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇത് ഹൈക്ക് പ്രദേശമാണ് ഇവര് നിക്കുന്നേ അതുപോലെ കരിമല കയറ്റം നമുക്ക് കഠിനം എന്നുള്ള രീതിയിലേക്ക് ഉണ്ട് ഉണ്ട് അത് അവിടുന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നല്ല ഇതാണ് അതിൻ്റെ ഒരു പകുതി കയറി കഴിഞ്ഞാൽ നമ്മള് താഴെ ചുറ്റുപാടിലും പ്രദേശങ്ങൾ വീക്ഷിക്കുമ്പോൾ നല്ല സ്റ്റൈല് സ്റ്റൈലൻ പെർഫോമൻസിംഗ് കാണണപോലെയാണ് അതുപോലെ അതിൻ്റെ ഇറക്കം ഇറക്കം അത് അതിൽ ഭയങ്കര സൗന്ദര്യം പിടിച്ച രീതിയാണ് ഇറക്കം നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കാട്ടിലും രീതി ഉള്ള വിഷമം പിടിച്ച രീതിയിലാണ് ഇറങ്ങാൻ ചെറിയ വീതി കുറഞ്ഞ വഴികൾ അതുപോലെ വീതി കൂടാതെ കുറച്ച് വളരെ കുറഞ്ഞ വഴികളിലൂടെ നടന്നു പോകണം അത് കുറച്ച് ഒര് ഒര് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേയുള്ളൂ വളരെ കഷ്ടപ്പെട്ട രീതിയിൽ നടത്താണ് അതുപോലെ ഒരു അവിടെ രാവിലെ ഏകദേശം നമ്മള് ഈ പിന്നെ വൈകുന്നേരം രാവിലെ അവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം സൂര്യനെ കാണുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും വൈകുന്നേരം ആയാലും സൂര്യ ഉദയം അസ്തമയം അസ്തമയം നല്ല രീതിയിൽ കാണാൻ പറ്റും അതുപോലെ അത് നമ്മള് പിന്നെ നമ്മള് ലാസ്റ്റ് കേറുന്നത് നീലിമലയാണ് നീലിമല കേറുന്നത് ഒരു അനുഭവാണ് പക്ഷേ നമ്മള് എല്ലാ മലകളും വലിയത് എന്ന് പറയുമ്പോൾ അതുപോലെ ഹൈടെക് മലയായിട്ട് തോന്നിയത് എനിക്ക് നീലിമല തന്നെയാണ് നീലിമല ശബരിമലയ്ക്കെത്തുന്നതിന് ഒരു ഏഴ് കിലോമീറ്റർ ആ മല ഉണ്ട് കൃത്യമായ ഒരു കാനനപാത തന്നെയാണ് പക്ഷേ അവിടെ എല്ലാവരും ക്രമീകരിച്ചു കൊണ്ട് കല്ല് പാത പാത മാറ്റി ഇപ്പോൾ കല്ലിൻ്റെ രീതികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡുകൾ കാര്യങ്ങൾ ഹൈടെക് പ്രദേശങ്ങൾ വളരെ താഴോട്ട് എത്രയോ അടി താഴെ കാനനപാത എന്ന് എത്രയോ അടി താഴേക്ക് നമുക്ക് നോക്കാൻ പറ്റും ഓളങ്ങൾ ഉള്ള പ്രദേശങ്ങളാണ് ഓളങ്ങൾ ഉള്ള പ്രദേശങ്ങളും അതുപോലെ കാഴ്ച ഭംഗി ഉള്ള പ്രദേശങ്ങളും ആണ് അത് നമുക്ക് കണ്ട് ആസ്വദിക്കുവാനും അനുഭവിക്കാനും ഉള്ള ഒരു അതുകൊണ്ട് പിന്നീട് ഒരു കുറച്ച് മാത്രം ഒരു ലെവൽ സ്ഥലങ്ങളും ബാക്കിയൊക്കെ ഒരു കേറ്റത്തിൻ്റെ അതേ എറക്കങ്ങളും നമുക്കുണ്ട് അതിൻ്റെ രീതിയിൽ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാൻ ഉണ്ട് എന്താണ് പക്ഷേ എനിക്ക് ഒരു ഭീകരമായ ഇഷ്ടപ്പെട്ട ഒരു ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലൂർ മൂകാംബികയിലേക്ക് പോയി മൂകാംബിക ക്ഷേത്രത്തില് ഇതേപോലെ കുടജാദ്രി എന്നു പറയുന്ന സ്ഥലമുണ്ട് കുടജാദ്രി എന്നു പറഞ്ഞാൽ നാഗോടി എന്ന സ്ഥലത്ത് വണ്ടി ഇറങ്ങി നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ നടന്നു പോകണം കുറേ ഹൈക്ക് പ്രദേശം കർണാടക കർണാടക സ്റ്റേറ്റിലും മൂകാംബിക എന്ന ജില്ലയിലെ കുടജാദ്രി എന്ന സ്ഥലത്താണ് നമ്മൾ പോയത് കുടജാദ്രി ഒരു അമ്പലമുണ്ട് അമ്പലമായി പോയപ്പോൾ അവിടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം വളരെ രീതിയിൽ അസ്ത അസ്തമയ സമയം നമുക്ക് വൈകുന്നേരം ഉള്ള അസ്തമയസമയ സമയം ഈ കുടജാദ്രി കുടജാദ്രി എന്ന മലയുടെ പേരാണ് സർവ്വജ്ഞ പീഠത്തിൻ്റെ അവിടുന്ന് അസ്തമയം കാണാൻ വളരെ ഭംഗിയാണ് അതിന് താഴെയാണ് ഈ ശ്രീഹള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെ സർവ്വജ്ഞപീഠത്തിൽ പോയി കഴിഞ്ഞാൽ സർവ്വജ്ഞ പീഠത്തിൻ്റെ അവിടുത്തെ മുകളിൽ നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട് നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് കർണാടകയിലെ ഹൈക്ക് പ്രദേശം നമ്മള് വളരെ ഭംഗിയായ പ്രദേശമാണ് വൈകുന്നേരങ്ങളിൽ നമുക്ക് കൃത്യമായി അസ്തമയ സൂര്യനെ കാണാൻ പറ്റും അത് ഓളങ്ങളുടെ ഇടയിലൂടി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുപോലെ ഹൈക്ക് എന്നു പറഞ്ഞാൽ അവിടെ താഴ്ച നമ്മൾക്ക് താഴോട്ട് മൊത്തം താഴെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓളങ്ങൾ മറഞ്ഞു കൊണ്ടും വൈകുന്നേരങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ രാവിലെ മഞ്ഞിൻ്റെ ഓളങ്ങൾ ഉണ്ടായതുകൊണ്ടും കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ സർവ്വജ്ഞപീഠം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ചിത്രം മൂലയാണ് ചിത്രം മൂലയും ഒരു നല്ല ഒരു യാത്ര ചെയ്യേണ്ട സ്ഥലമാണ് വളരെ ഹൈക്ക് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് അതുപോലെ ഈ നാഗോടിയിൽ നിന്നും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു പോകുന്ന ഒരു രീതിയാണ് ഈ കുടജാദ്രിക്കുള്ളത് നടന്നു പോകുന്ന മൊത്തം കേറ്റമാണ് അതായത് എയർ പിൻ വളവ് ഫുള്ള് വളവ് ചെറിയ കേറ്റങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന രൂപത്തിൽ നടന്നു പോകാൻ യാത്ര സൗകര്യം നടന്നു പോകാൻ മാത്രം അവിടുത്തേക്ക് നടന്നു പോയിട്ട് അമ്പലം കാണാനുള്ള ഒരു സൗകര്യം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഞാൻ അവിടെ പോയത് പക്ഷേ അപ്പോൾ നല്ല അനുഭവമായിരുന്നു ഇപ്പോൾ അവിടുത്തേക്ക് ചെറിയ രീതിയിൽ റോഡും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രദേശത്തിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല അത് എന്തു തന്നെയായാലും നമ്മളത് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ എവിടെ പോയിട്ട് വളരെ നമുക്ക് അവിടുത്തെ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മളവിടെ രണ്ടു ദിവസം താമസിക്കുകയും താമസിച്ചപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത അത്ര തന്നെ ആ ഒരു നിർണായകമായ ഒര് രീതി ആയിട്ട് ഉണ്ട് നല്ല ഒര് ഞാൻ സഞ്ചാരത്തിന് യോജിച്ചതാണ് അവിടെ പിന്നെ അത്രയും ഹൈക്കായ പ്രദേശമായതു കൊണ്ട് മുന്നേ ജന ജനങ്ങൾ അവിടെ വളരെ കുറവായിരുന്നു പഴയ കാലങ്ങളിലും ഇപ്പോഴും യാത്ര സൗകര്യം വണ്ടി ഒക്കെ പോകാനുള്ള ഒരു സംഭവം സംവിധാനം ഉണ്ട് ജീപ്പ്കള് പോകുന്നുണ്ട് പഴയകാലത്ത് ഒന്നും ജീപ്പൊന്നും പോകില്ലാരുന്നു നടന്നു കൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ ചെറിയ റോഡുകളെ ഇപ്പോൾ ചെറിയ റോഡൊക്കെയായി ജീപ്പും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയെടുത്ത് പോകാൻ പറ്റും എന്നാലും അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല നല്ല കാര്യമാണ് പറയാനുള്ളത് നമ്മള് നമ്മളെപ്പോലെ ഒരു അസ്തമയസമയം നോക്കാൻ നമക്കും ഉദയ സമയം നോക്കാൻ നമുക്ക് അസ്തമയസമയം നോക്കാൻ നമക്ക് ഏറ്റവും നല്ല സ്ഥലം നമുക്ക് പള്ളിക്കര ബീച്ചാണ് പള്ളിക്കര ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അസ്തമയം ഏത് അവസ്ഥയിലും അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ്റെ ചലനങ്ങളും മറ്റു കാര്യങ്ങളും വളരെ കൃത്യമായി വീഴ്ച വീഴ്ച ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം പള്ളിക്കര ബേക്കൽ ഫോർട്ട് ബീച്ചിലേക്ക് നമുക്ക് പോയാൽ മതിയാകും അവിടെ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയാണ് ബേക്കൽ ബീച്ചിലുള്ളത് അതുപോലെ ഞാന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് അസ്തമയം ഉദയം കണ്ടിരുന്നു നല്ല ഉദയ സമയത്താണ് അവിടെ നിന്നും ഉദയം കാണാനുള്ള ഒരു അവസ്ഥ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന് ഉണ്ട് ഉദയ ഉദയാസ്തമയം ശരിക്കും കാണേണ്ടത് തിരുവനന്തപുരം വിവേകാനന്ദ പാറയിൽ നിന്നാണ് അവിടെയും അതിൻ്റെ